പിന്നെ ഇത് ഗൈഡ് ആണോ ആ നമ്മള് ഒരു പിന്നെ നമ്മള് ഇവിടെ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത് ആണേ അപ്പം നമ്മള് ഒന്ന് കോഴിക്കോടിലേക്ക് ഒര് ട്രിപ്പ് വരാൻ വേണ്ടി ആയിരുന്നു അപ്പം അവിടെ സീ ഫുഡിന് നിങ്ങടെ ഹോട്ടല് ഫേമസാന്ന് കേട്ട് ഇണ്ടായിരുന്നു അപ്പം അവിടെ എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളതാന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

മ് ആണല്ലേ മ് ആ ഞാൻ ഹാ ഹാ ഹാ എങ്ങനെ ഒര് ആൾക്കെ കഴിക്കാൻ പറ്റുള്ളൂ ആ ടു തൗസൻഡ് ഫൈവ് ഹൻഡ്രഡിന് ആണല്ലേ മ് ആ ഉണ്ട് അല്ലേ ഹാ ഹാ ഹാ ആ ആ അപ്പം പിന്നെ നമ്മള് ഇത് വരുവാണങ്കിൽ നമ്മള് മുൻകൂറ് ഓർഡർ ചെയ്യണോ അതോ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നമ്മള് പറഞ്ഞാൽ മതിയോ ആണല്ലേ ആ ഓ